അതേ ആരാണ് ആ ആ അതെ അതെ ഉണ്ട് ആണല്ലേ ആ അത് വന്നിട്ട് ഒരു പതിനെട്ട് സെൻ്റുണ്ടാവും അതിപ്പം പത്രത്തിൽ ഉണ്ടായിരുന്നല്ലൊ ഡീറ്റെയിൽസ് എന്നാലും ഞാൻ പറയാം ഒരു പതിനെട്ട് സെൻ്റ് ഉണ്ടാവും സെൻ്റിന് വന്നിട്ട് രണ്ട് ലക്ഷം രൂപ വച്ചാണ് അപ്പം എങ്ങനെയാണ് മാഡത്തിന്നാണോ

ആ ഉള്ളിലോട്ട് വരണം ഉള്ളിലോട്ട് കുറച്ച് അങ്ങ് വരുമ്പോഴത്തേക്ക് ഒരു ഷോപ്പുണ്ട് ആ കടയിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് പോയി നേരെ പോവുന്ന ലാസ്റ്റ് എത്തുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയിലാണ് ആ കാറൊക്കെ ആ കാറൊക്കെ കേറുന്ന വഴി വഴി തന്നെയാണ് ലോറി സൈറ്റുമാണ് അപ്പോഴത്തേക്ക് മേഡത്തിന് ഒരു വീട് വയ്ക്കുന്നെങ്കിൽ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല ആ കായലിനോട് ചേർന്നുള്ളതാണ് ഇപ്പം വീട് വച്ചില്ലെങ്കിൽ എന്തെങ്കിലും കൃഷി ചെയ്യുന്നെങ്കിൽ മാഡത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അവിടെ ആ വെള്ളത്തിന് കായലിനോട് ചേർന്ന് കിടക്കുന്നത് കൊണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടും ഉണ്ടാവില്ല

അതെ അതെ എൻ്റെ എൻ്റെ പേരിൽ തന്നെയാന്ന് പ്രോപ്പർട്ടി അതെ മതിയാവും മതിയാവും എന്നെ ഫോണിൽ വിളിച്ചാലും മതിയാവും എവിടെ എത്തിയിട്ട് എവിടെയാണ് വീട് അതെ ആ ആ ഓ അതെ അപ്പം ആ ആ അപ്പം കുഴപ്പമില്ല അപ്പം വിളിച്ചാലും മതിയാവും ഒരു മണിക്കൂറത്തെ ഒരു യാത്രയല്ലെ വരുകയുള്ളൂ അര മണിക്കൂറത്തെ ആ ആ ശരി ശരി അപ്പം നിങ്ങൾ സംസാരിച്ച് തീരുമാനം ആയിട്ട് എന്നെ ഒന്ന് വിളിച്ചാൽ മതിയാവും വിളിക്കുമ്പോഴത്തേക്ക് ഞാനും കൂടെ വന്ന് നമ്മൾക്ക് പ്രോപ്പർട്ടി കാണാം ഓക്കെ ഓക്കെ ഓക്കെ